ഹലോ ഓക്കേ നിങ്ങൾ എത്ര ലക്ഷം രൂപയാണ് വേണം എന്ന് വിചാരിക്കുന്നത് എത്ര ലക്ഷം രൂപയാണ് എടുക്കാന് ഉദ്ദേശിക്കുന്നത് എന്ന് എട്ട് ലക്ഷം അത് പിന്നെ ഗോള്ഡ് ലോണ് ആയിട്ടാണോ അതോ നികുതി ചീട്ട് വെച്ചിട്ടാണോ ഓക്കേ ഓക്കേ അങ്ങനെ ചെയ്യാം ആ എടുക്കാം എടുക്കാം ആ ഓക്കേ അപ്പം നമ്മൾ എട്ട് ലക്ഷം ആവുമ്പം നാലായിരം രൂപ വീതം വെച്ച് മന്ത്ലി അവർ പിടിക്കും അപ്പം ആ ഒരു ഒന്ന് എട്ടുലക്ഷം ആണെങ്കിൽ അപ്പം നിങ്ങൾ പിന്നെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചു പോവാണേങ്കിൽ ഇന്ട്രസ്റ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരും നമ്മൾ എത്ര പലിശ പിന്നെ ഓക്കേ നിങ്ങൾ നമുക്കിവിടേ പലിശ വന്നിരിക്കുന്നത് എട്ടുലക്ഷത്തിനു വരുന്നത് ഇരുപത്തിനാല് ശതമാനം പലിശയൊക്കെയാണ് വരുന്നത് വേണേൽ നമുക്ക് പാ പിന്നെ പന്ത്രണ്ടിന്റെ ഉണ്ട് നമുക്ക് വേണേൽ പന്ത്രണ്ടിലേക്ക് വയ്ക്കാം ഓക്കേ ഓക്കേ എന്നാൽ പിന്നെ നിങ്ങൾ അതിന്റെ ഡീറ്റയില്സ് പിന്നെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ബാങ്കിലോട്ട് വന്നാൽ മതി ബാങ്കും ഇതുമായിട്ട് ആധാര് കാര്ഡ് വേണം പിന്നെ ഒരു ഫോട്ടോ വേണം പിന്നെ ജാമ്യം നിൽക്കാൻ ഒരാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം ഓക്കേ ഓക്കേ ഓക്കേ ഞാന് വാട്ട്സപ്പ് ചെയ്യാം ഈ നമ്പരിലോട്ട് ചെയ്താൽ പോരെ ഓക്കേ താങ്ക് യൂ